അതെ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പിൾ ആണ് ആരാണു വിളിക്കുന്നത് ആ ആ എത്രാം ക്ലാസ്സിലേക്കാണ് ആ ആ ആ അപ്പോൾ ആ ആ ഫീസും കാര്യങ്ങളും പിന്നെ ഇവിടെ ഡൊണേഷൻ ഉണ്ട് കേട്ടോ ഡൊണേഷൻന്ന് പറയുമ്പോൾ ആ നിങ്ങൾ ഫസ്റ്റ് ഒരു കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പം രണ്ട് കുട്ടിക്കും കൂടെ അൻപതിനായിരം രൂപ ഡൊണേഷൻ അടക്കേണ്ടി വരും അപ്പോൾ ആ നിങ്ങൾ വരുമ്പോൾ അയ്യായിരം രൂപ അടച്ചാൽ മതി ഒരു കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തഞ്ഞൂറ് വീതം അയ്യായിരം രൂപ അടച്ചാൽ മതി പിന്നീട് മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ കുറച്ച് കുറച്ച് അടച്ച് തീർത്താൽ മതി പിന്നെ അതുപോല ഫീ വേറെയും ഉണ്ട് ഇപ്പം സ്കൂൾ ഫീസ് വേറെയാന്ന് അതെന്ന് പറയുന്ന ഓരോ കുട്ടിക്കും ഇപ്പം എൽ കെ ജി വേറെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വേറെ ആയിരിക്കും അത് നിങ്ങൾ വരുന്ന ദിവസം ഓഫീസായിട്ട് ബന്ധപ്പെടണം എത്രയാണ് എങ്ങനെയാന്നൊക്കെ പിന്നെ അതുപോലെ യൂണീഫോമും അതുപോലെ ഫുഡ്ഡും ഫുഡ്ഡും കാര്യങ്ങളൊക്കെ വീട്ട്ന്ന് കൊണ്ടുവരണം യൂണീഫോമ് പിന്നെ ബസ്സ് സൗകര്യം അതൊക്കെ അതുപോലെ ബുക്ക്സ് അതൊക്കെ ഇവിടുന്നന്നെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിൻ്റെ അമൗണ്ട് നിങ്ങൾ ഇവിടെ പേ ചെയ്തിട്ട് വേണം അത് വാങ്ങീട്ട് പോകാൻ ആ പിന്നെ അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് നിങ്ങൾ പെൺകുട്ടികളാണോ അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെയാണ് ആ ഒരു ആണും ഒരു പെണ്ണും അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടീടെ ടി സി ഒക്കെ വാങ്ങിയതാണോ ആ അപ്പം അതും ആ ആ അപ്പം എന്നാൽ ആ കുട്ടിയുടെ ടി സിയും കൊണ്ടുവരണം കേട്ടോ വരുമ്പം അവിടുന്ന് കിട്ടിയ ആ ആ പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഓഫീസിൽ ചോദിച്ചാൽ മതി പിന്നെ ബസ്സ് സൗകര്യം നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് വേറെ ഓട്ടോയിലോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ആ എന്നാൽ മുൻ അതിന്റെ തൊട്ട് മുൻപേ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചേർക്കാൻ വരുന്ന ആ സമയത്തന്നെ അതും ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ബസ്സിൽ ഫുൾ ആയിപ്പോയാൽ പിന്നെ കിട്ടില്ല കുട്ടികൾക്ക് ആ അപ്പം നിങ്ങൾ ആദ്യമേ വന്ന് പറയണം പിന്നെ യൂണീ ഫസ്റ്റ് സ്കൂൾ തുടങ്ങുന്ന ദിവസം തന്നെ യൂണീഫോമ് ഇടണം അതുകൊണ്ട് അതും അതിനു മുൻപെ വാങ്ങേണ്ടതാണ് ആ ആ പിന്നെ അതുപോലെ ആ ഇത്രേ ഉള്ളൂ ആ തിങ്കളാഴ്ച്ച അഡ്മിഷൻ എടുക്കുന്നത് ഈ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലാണ് അപ്പോൾ അതിന്റെ ആ ഈ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ മതി പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അതിൻ്റെ ഒരാളുണ്ട് അവിടെ അപ്പം ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി എന്നാൽ ഓക്കെ